ഹാലോ ഞാൻ കുറച്ച് കുറച്ച് മുന്നേ പിന്നെ ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ ആ ബ്രേക്ക്ഫാസ്റ്റ് ആണേ അപ്പോൾ ആ നമ്മ ഞാനോർഡർ ചെയ്തത് ഇടിയപ്പവും പിന്നെ സ്റ്റുവുമാണ് അപ്പം പിന്നെ ഞാന് ഓർഡർ ചെയ്തിട്ടിപ്പം ഞാനൊരു ഏഴര ഒക്കെ ആവുമ്പം ഓർഡർ ചെയ്തതാണെ അപ്പം എട്ടര ഒക്കെ ആകുമ്പത്തേക്ക് ഡെലിവറി ബോയി എത്തും എന്നാണല്ലൊ നിങ്ങള് പറഞ്ഞത് അപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പോൾ ഒമ്പതര ആയില്ലേ ആ നമുക്കിപ്പം വീട്ടിൽ കുറച്ച് കസിൻസ് വന്നിട്ടപ്പം അവര് വന്നിട്ട് തന്നെ അരമണിക്കൂറായി ഞങ്ങള് ചാ ജെസ്റ്റോരു ചായയെ കൊടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ ഇത് പ്രതീക്ഷിച്ചിട്ട് ഞമ്മൾ വേറൊന്നും വേറെ കടി കാര്യങ്ങളൊന്നും മേടി മേടിച്ചിട്ടും ഇല്ല അതെന്താ ഇത്ര ടൈമായിട്ടും വരാത്തത് ബ്ലോക്കോ ആ ഞാ പക്ഷെ ഞാനയാളെ വിളിച്ചിട്ട് അയാൾ എടുക്കുന്നില്ലല്ലോ

ആ നിങ്ങൾ ഒന്നു വേഗം ആ അയാളെ വിളിച്ചിട്ടൊന്നു പെട്ടെന്ന് എത്തിക്കാൻ പറയുമോ കാരണം നമ്മള് അതായത് നമ്മള് കാത്തിരിക്കുന്നത്തിന് ഒരു പരിധി ഇല്ലേ നമ്മൾ ഇപ്പോൾ രാവിലത്തെ ബ്രൈക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ലഞ്ചിന് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ഹാ ഹാ ഓക്കേ ഓക്കേ ഹാ എന്നാൽ ചോദിച്ചിട്ട് ഒന്ന് വിളിച്ചാൽ മതി ഓക്കേ